ഞങ്ങളുടെ നാട്ടില് പ്രസവ പരിചരണമാണെങ്കിലും ശിശു പരിചണ പരിചരണമാണെങ്കിലും വളരെയധികം മുൻഗണന നൽകുന്ന ഒരു പ്രദേശമാണ് അവിടെ പ്രസവ പരിചരണം എന്ന് പറയുമ്പോൾ പ്രസവ ഗർഭിണിയാണെങ്കിൽ അവരുടെ വെയ്റ്റ് നോക്കാനാണെങ്കിലും അവരുടെ ഫുഡ് ഭക്ഷണ രീതികളാണെങ്കിലും എല്ലാം കറക്ടായി ശ്രദ്ധിക്കാറുണ്ട് അംഗൻവാടികളിൽ നിന്നും അതിനുവേണ്ടിയിട്ടുള്ള അമൃതം പൊടി അങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ കൊടുക്കാറുണ്ട് അതേപോലെ വെയ്റ്റ് നോക്കാനും അതിൻ്റെ ഭക്ഷണരീതികള് നോക്കാനൊക്കെ ആശാ വർക്കർമാര് ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ ശിശു പരിചരണമാണെങ്കിൽ തന്നെ കുട്ടികൾക്കാവശ്യമായിട്ടുള്ള മരുന്നുകളും പോളിയോകളും അതിനുവേണ്ട കുത്തിവെപ്പുകളൊക്ക ഇവിടെ തന്നെ ലഭ്യമാണ് പ്രാദേശിക ആശുപത്രിയിൽ തന്നെ ലഭ്യമാണ് പിന്നെ അതിനനുസരിച്ച് നമുക്ക് അംഗൻവാടികളിലും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് അതുപോലെ അവിടുന്ന് ആശാവർക്കർമാര് പോലുള്ളവരൊക്കെ വന്ന് വീടുകളിൽ വന്നിട്ടും അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് തരാറുണ്ട്